ഒരുപാടുതരത്തിലുള്ള ചെടികള് വളര്ത്താന് എനിക്കിഷ്ടമാണ് ഇപ്പോള് പൂക്കളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും വൈവിധ്യമാര്ന്ന സസ്യലല ലദാ താദികളാണെങ്കിലും എനിക്ക് പൂന്തോട്ടത്തില് വളര്ത്തുവാന് അതിയേറെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാന് എനിക്കതൊക്കെ വളര്ത്തുന്നതിലൂടെ മനസികമായിട്ടൊരു ഉല്ലാസവും സംതൃപ്തിയും വന്നുചേരും ഞാന് അതിയായി സന്തോഷിക്കും ഇതെല്ലാം വളര്ത്തുന്നതിലൂടെ അതുവഴി എനിക്ക് വരുമാനമുണ്ടാക്കാനും ഇതൊരു പ്രധാന സ്രോതസ്സാണ് പൂക്കള് അതുപോലെതന്നെ പഴങ്ങള് ചെടികള് അങ്ങനെ ഒരുപാട് സസ്യലതാദികള് വളര്ത്തുന്നതില് ഔഷധചെടികള് ചെടികൾ വളര്ത്തുന്നതിലൂടെ എനിക്ക് രോഗപ്രതിരോധശേഷി വരെ നേടാനാകും അത് വളര്ത്തി അത് ഉപയോഗിക്കുന്നതിലൂടെ പഴങ്ങള് ഉപയോഗിക്കുന്നതിലൂടെ എനിക്ക് പുറത്തുനിന്ന് വിഷമടിക്കാത്ത പച്ചക്കറി പഴവര്ഗങ്ങള് വാങ്ങി അതുപയോഗിച്ച് ആ നല്ല ആരോഗ്യം നിലനിര്ത്താന് സാധിക്കും അതുപോലെതന്നെ പച്ചക്കറികള് വിഷമ വിഷമടിക്കാത്ത വിഷരഹിതമായ പച്ചക്കറികള് വാങ്ങുന്നതിലൂടെ എനിക്ക് ഒരുപാട് രോഗപ്രതിരോധശേഷി നേടുവാന് കഴിയും അതുപോലെ തന്നെ പൂക്കള് പൂക്കള് വളര്ത്തുന്നതിലൂടെ പലതരം പൂമ്പാറ്റകളും തുമ്പികളും ഒക്കെ വന്ന് തേന് നുകരും തേന് നുകരുന്നതിലൂടെ അവര്ക്ക് അവരുടെ വിശപ്പും മാറും എനിക്ക് എനിക്ക് സന്തോഷവും തരുന്നു അതൊരു പ്രത്യേക അനുഭൂതിയാണ് അത് അനുഭവിച്ചറിയുക തന്നെ വേണം പിന്നെ ഒരു പൂന്തോട്ടം തന്നെ നമ്മുടെ വീടുകളില് ആക്കി കഴിഞ്ഞാല് നമ്മുടെ വീടുകള്ക്ക് ഒരു ആകര്ഷണീയത വെ രും നമ്മുടെ പൂന്തോട്ടത്തിന് ആകര്ഷണീയത വരും എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് ആകര്ഷിക്കും കാക്കകളാണെങ്കിലും പക്ഷികളാണെങ്കിലും തുമ്പികളാണെങ്കിലും പൂമ്പാറ്റകളാണെങ്കിലും എല്ലാവര്ക്കും നമ്മുടെ വീടിനോടും നമ്മുടെ പൂന്തോട്ടത്തിനോടും ആകര്ഷ്ട ആകര്ഷകത ഉളവാക്കും നമ്മുടെ കണ്ണിനും നമ്മുടെ മനസ്സിനും എല്ലാം തന്നെ ഒരു കുളിര്മയേകുന്ന മനോഹരിയാണ് ഈ പൂന്തോട്ടമെന്ന് പറയുന്നത് പൊതുവെ വീടിന് പുറത്ത് നമ്മള് സസ്യങ്ങളും മറ്റ് പ്രകൃതി വസ്തുക്കളും പ്രദര്ശിപ്പിക്കാനും അത് നട്ടുവളര്ത്താനുമായിട്ട് നീക്കി വച്ചിരിക്കുന്ന ഒരിടമാണ് പൂന്തോട്ടമെന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോള് വേറെ കാര്യങ്ങള് പറയുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടങ്ങളിലെ പ്രകൃതിദത്തമായിട്ട് ഒരുപാട് വസ്തുക്കള് മനുഷ്യ നിര്മ്മിതായിട്ട് കുറേ വസ്തുക്കളും ഉള്ക്കൊള്ളുന്ന ഉള്ക്കൊള്ളുന്നതാണ് നമ്മുടെ പൂന്തോട്ടങ്ങളെ സര്വ്വസാധാരണയായിട്ട് കാണപ്പെടുന്നെങ്കിലും മൃഗശാല അതേപോലെതന്നെ സസ്യോദ്യാനമെന്നിവയും വിശാലമായ നമ്മുടെ അര്ത്ഥത്തിലെ പൂന്തോട്ടങ്ങളില് ഉള്ക്കൊള്ളുന്ന ഒന്നാണ് ഇപ്പോള് ചില പരമ്പരാഗത തരത്തിലുള്ള കിഴക്കന് തോട്ടമുണ്ടാകും അതേപടി അങ്ങനത്തെ കിഴക്കന് തോട്ടങ്ങളൊക്കെ ഒരുപാട് സസ്യങ്ങള് നമ്മള് ഉപയോഗിക്കാറുണ്ട് നമ്മള് കാണാത്ത ഒരുപാട് സസ്യങ്ങള് നമ്മള് ഉപയോഗിക്കാറുണ്ട് പിന്നെ ഒരു നിശ്ചിതകാലത്തെത്തുകയാണെങ്കില് ആ വീട് പച്ചക്കറി പഴം പൂക്കള് ഔഷധസസ്യങ്ങള് അങ്ങനൊക്കെ ചെടികള് വളര്ത്തുന്ന പ്രക്രിയയാണ് നമ്മുടെ പൂന്തോട്ടങ്ങളെ പരിപാലിക്കല് പിന്നെ ഒരുപാട് ഇപ്പോൾ സൗന്ദര്യാത്മക പ്രദേശങ്ങള് മരുന്നുകള് പിന്നെ സൗന്ദര്യവര്ധക വസ്തുക്കള് ചായങ്ങള് ഭക്ഷണങ്ങള് വിഷവസ്തുക്കള് വന്യജീവികളുടെ ആവാസവ്യവസ്ഥകള് വില്പ്പന സാധനങ്ങളുടെ ഉത്പാദനം ഒക്കെ നമ്മുടെ പൂന്തോട്ടത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നു പിന്നെയും അതുപോലെതന്നെ തോട്ടം കൃഷിയാണെങ്കില് തന്നെ തോട്ടം കൃഷിയില് നിന്ന് നമുക്ക് വേര്തിരിച്ചറിയാന് പ്രയാസമാണ് നമ്മള് ഒരുപാട് കൃഷികള് ചെയ്യുന്നതിലൂടെ നമ്മുടെ കന്നുകാലി ഉല്പ്പാദനവും വര്ദ്ധിച്ചേക്കാം പുല്ലുവളര്ത്തുന്നത്തിലൂടെ നമുക്ക് കന്നുകാലികള്ക്ക് അത് ഒരു ഭക്ഷണമാക്കി കൊടുക്കുവാന് സാധിക്കുന്നു